ഞാൻ മെയിനായിട്ട് സിനിമാറ്റിക്ക് ഡാൻസാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാറ് പക്ഷേ ഞാൻ അത്യാവശ്യം ക്ലാസിക്കൽ കളിക്കും ഞാൻ അങ്ങനെ പോയി പഠിച്ചിട്ടൊന്നുമില്ല ക്ലാസിക്കൽ അത്യാവശ്യം സ്കൂളിൽ ആ പ്രോഗ്രാം ടൈമിൽ അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെയൊക്കെ മാത്രമേ ക്ലാസ്സിക്ക് ഡാൻസസ് അറിയത്തുള്ളൂ സിനിമാറ്റിക്കിന് ഞാൻ സോങ്ങ് ചൂസ് ചെയ്യുന്നത് എങ്ങനാന്നു വെച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ റീൽസ് നോക്കിയാണ് സോങ്ങ് ചൂസ് ചെയ്യാറ് നമ്മുടെ റീൽസിൽ ഏറ്റവും കൂടുതലിപ്പം ട്രെൻറ്റിങ്ങായിട്ടു നിൽക്കുന്ന സോങ്ങ്സില്ലേ അങ്ങനെ ഞാൻ സെലക്റ്റ് ചെയ്യും അതിപ്പം എന്താ പറയുക നമ്മുടെ ഇൻസ്റ്റയിലെ യൂട്യൂബ് അങ്ങനെ വരുന്ന സോഷ്യൽ മീഡിയാസൊക്കെയല്ലേ അതിൽ ട്രെൻറ്റിങ്ങായിട്ടുള്ള സോങ്സാണ് ഞാൻ മിക്കവാറും ഈ സിനിമാറ്റിക്കിന് ചൂസ് ചെയ്യാറ് പിന്നെ ഒരു എല്ലാം ട്രെൻറ്റിങ്ങായാൽ ബോറാകില്ലേ അപ്പം ഞാനെന്തു ചെയ്യും കുറച്ച് കുറച്ച് ഓൾഡ് സോങ്ങ് എന്നുവെച്ചു കഴിഞ്ഞാൽ കുറച്ച് വൈബ് കിട്ടുന്ന അതായത് ഇച്ചിരി ബാസ് ഡി ജെ ഒക്കെ മിക്സാകുന്നൊരു ചെറിയ സിനിമാറ്റിക്ക് സോങ്ങ്സൊക്കെ എടുക്കാറുണ്ട് പിന്നെ ക്ലാസ്സിക്ക് ഡാൻസിനു സോങ്ങ് ഞാൻ സെലക്റ്റ് ചെയ്യുന്നത് ഡാൻസ് അനുസരിച്ച് എന്നു വെച്ചാൽ ഇപ്പം ഈ നമ്മളാ എവിടേലും നോക്കിയിട്ടൊക്കെയാണ് പഠിക്കണെ ഞാൻ ക്ലാസ്സിക്ക് ഡാൻസിലത്ര പ്രഫഷനല്ലാത്തതു കൊണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയാണ് സാധാരണ പഠിക്കാറ് അപ്പം നമുക്ക് നമ്മളുടെ ഒരു ഒരിതിനു വരുന്നത് അതൊരു കുറച്ചത്യാവശ്യം സിംപിൾ ആയിട്ടുള്ളൊരു സ്റ്റെപ്സൊക്കെ വരുന്നതനുസരിച്ചാണ് ഞാൻ ക്ലാസ്സിക്ക് നോക്കാറ് ക്ലാസ്സിക്കിനല്ലാണ്ടൊരു ഇന്നതെന്നു വെച്ച് ചൂസ് ചെയ്യാറില്ല എന്നെക്കൊണ്ട് സ്റ്റെപ്സൊക്കെ മാക്സിമം എനിക്കു പറ്റുന്ന രീതിയിലെന്നാണ് ഞാൻ ക്ലാസ്സിക്കൽ ചൂസ് ചെയ്യുന്നത് പിന്നെ പറയാനുള്ളത് എന്താന്നു വെച്ചാൽ ഒരുപാടിങ്ങനെ സ്ട്രെങ്ത്ത് കൊടുത്തിട്ടുള്ള ക്ലാസ്സിക്ക് ഡാൻസുകളില്ലേ അതായത് ഭയങ്കര പ്രഫഷണൽസ് കളിക്കുന്ന സോങ്ങ്സൊക്കെ വെച്ചിട്ട് അങ്ങനൊന്നും ഞാൻ പൊതുവെ ചൂസ് ചെയ്യാറില്ല സാധാരണ നമുക്കിപ്പം പ്രയർ ഡാൻസ് വെൽക്കം ഡാൻസ് അതിനൊക്കെ നമ്മൾ ക്ലാസ്സിക്ക് കളിക്കാറുണ്ടല്ലോ ആ ഒരു രീതിയിൽ വരുന്ന ഒരു ലൈറ്റാണെന്നാണ് അത്യാവശ്യം നല്ലതായ രീതിയിലൊക്കെയാണ് ഞാൻ ക്ലാസ്സിക്കൽ ഡാൻസിനു സോങ്ങ് ചൂസ് ചെയ്യാറ് സിനിമാറ്റിക്കിൻ്റെ അങ്ങനെ അത്രയുള്ളു